ഹലോ ആ ആ മാഡം പറഞ്ഞോളൂ ആ അതെ അതെ ആ ആ അതെ അതെ ആ മാഡം പറഞ്ഞോളൂ ആ അത് മനസ്സിലായി കാരണം ഞാനേ സേവ് ചെയ്ത് വെച്ചിരുന്നു മാഡത്തിൻ്റെ നമ്പർ ആ ഉം ആ ആ

ആ ആ ആ ആ ആ ആ ആ ആ ആ ആ

ആ പഴയ വാച്ച്മാൻ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ ആ ഉം ആ ആ അതെ ആ ആ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മാഡം പറഞ്ഞാൽ മതി അതുപോലെ ചെയ്യാം ആ ആ ആ ആ ആ ആയിക്കോട്ടെ പിന്നെ ഇവിടെ അല്ല ഇവിടെ അടുത്തുള്ള ഹോസ്റ്റലിൽ അവിടുത്തെ ഒന്ന് നോക്കണം എന്നുണ്ടോ ആ

ആ ആ ആ ആ വാച്ച്മാൻ ആ പഴയ വാച്ച്മാൻ പറഞ്ഞിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതാണ് ഞാൻ ചോദിച്ചത് ചെയ്യണമെന്ന് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കൺഫേം ആക്കി ആ ആ ആ ഓക്കെ ആ ഓക്കേ കി ആ ആ ആ ഓക്കെ ആ അതെ ശ്രദ്ധിക്കാം

ആ ശ്രദ്ധിക്കാം മാഡം ആ എന്നാൽ ശരി ഓക്കെ